ഞാൻ ഇത്തിത്താനത്താണ് അപ്പം ഞങ്ങൾക്കിവിടെ ധാരാളം പലചരക്ക് കടകളൊക്കെ ഉണ്ട് വലുതും ചെറുതുമായത് പല കടകളിലും പല കച്ചവടങ്ങളൊക്കെയാണ് വിലകൾ തമ്മിലാണ് എപ്പോഴും വ്യത്യാസമുണ്ട് അപ്പം അവിടെ ഒത്തിരി സാധനത്തിന് ചില കടകളിലൊക്കെ നമ്മൾക്ക് അരി ഉഴുന്ന് പരിപ്പ് കാര്യങ്ങളൊക്കെയാണ് അതിൽ തന്നെയാണ് ക്വാളിറ്റിക്ക് വ്യത്യാസങ്ങളുണ്ട് സവോളയുണ്ട് പിന്നെ ചില കടകളിലൊക്കെ ബേക്കറി ഐറ്റംസുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ ബേക്കറി ഐറ്റംസെന്ന് പറയുമ്പോൾ നമുക്കറിയാം പിള്ളാർക്ക് ഇഷ്ടമുള്ള പല തരത്തിലുള്ള കേക്കുകൾ അതുപോലെത്തന്നെ ജ്യൂസുകൾ പിന്നെ മറ്റ് ബണ്ണ് ഇതൊക്കെ പിന്നെ പിന്നെന്താണെന്ന് ചോദിച്ചാൽ പിള്ളേർക്കൊക്കെ ഇഷ്ടമുള്ളതാണല്ലോ നമ്മുടെ ജാമുകൾ അപ്പം അങ്ങനെ അപ്പം അതുപോലത്തന്നെ അവിടെ സൂപ്പർമാർക്കറ്റും ഉണ്ട് അപ്പം കടക്കാരുകൾ തമ്മിൽ തന്നെയാണെങ്കിൽപ്പോലും അവർ ഭയങ്കര മത്സരങ്ങളും കാര്യങ്ങളുമൊക്കെ ആണ് അപ്പം നമ്മളേറ്റവും വില കുറവുള്ളതും ക്വാളിറ്റി ഉള്ളതുമായ കടകളിലൊക്കെയാ നമ്മൾ കയറുന്നത് അപ്പം നമ്മൾ ചിലപ്പം ചില കടകളിലൊക്കെ ചെന്ന് നമ്മൾ വില പേശാറുണ്ട് കാരണം അപ്പുറത്തെ കടയിൽ ഇത്രയും രൂപയല്ലേ ഉള്ളൂ ഇപ്പം പയറിൻ്റെ വില തന്നെ എടുത്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ചില കടകളിലൊക്കെയാണെങ്കിൽ എൺപത് രൂപ ചില കടകളിൽ എഴുപത് രൂപ ചിലയിടത്തറുപത് രൂപ അപ്പോൾ നമ്മളിപ്പം എഴുപത് രൂപയുള്ള കടയിലാണ് നമ്മൾ സ്ഥിരം പോകുന്നതെങ്കിൽ നമ്മളാ കടക്കാരോട് പറയും അപ്പുറത്തെ കടയിൽ ചെന്നപ്പോൾ അവിടെ അറുപത് രൂപയല്ലേ ഒള്ളായിരുന്നു ഇവിടെ ഭയങ്കര വില കൂടുതലാണല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് വില കുറച്ച് തരണമെന്നൊക്കെ ഇപ്പം നമ്മൾ വില പേശാറുണ്ട് അപ്പോൾ ചിലപ്പോൾ അവർ പറയും അത് ക്വാളിറ്റി ഇല്ലാത്തതാണ് അല്ല അങ്ങനെയുള്ളത് വാടിയതാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒഴിവാക്കാൻ ശ്രമിക്കും പക്ഷെ നമ്മളെന്നാലും നമുക്ക് വില തന്നെ പേശിയാണ് നമ്മൾ മേടിക്കാറുള്ളത് പല സാധനങ്ങൾക്ക് അതുപോലെത്തന്നെ അരിയാണെങ്കിലും അമ്പത്തിരണ്ട് രൂപയുള്ള സ്ഥലങ്ങളുണ്ട് നാൽപ്പത്തഞ്ച് രൂപയുള്ള സ്ഥലം അപ്പം അരിക്ക് തമ്മിൽ വ്യത്യാസമുണ്ടായിരിക്കും പിന്നെ വെളിച്ചെണ്ണ ഇപ്പം നമുക്കറിയാം വെളിച്ചെണ്ണയെന്ന് പറയുമ്പോഴേക്ക് വെളിച്ചെണ്ണ നല്ല ക്വാളിറ്റി ഉണ്ട് അല്ലാതെ ഉണ്ട് പാക്കറ്റ് വെളിച്ചെണ്ണ ചിലപ്പം നൂറ്റിമുപ്പത്തഞ്ച് രൂപ മുതൽ കിട്ടുന്നുണ്ട് പക്ഷേ ശുദ്ധമായ വെളിച്ചെണ്ണയെന്നൊക്കെ പറഞ്ഞവർ നമുക്ക് തരുന്നത് ഇരുന്നൂറ് രൂപയ്ക്കുള്ള വെളിച്ചെണ്ണയൊക്കെ ഉണ്ട് കിലോയ്ക്ക് അത് ശുദ്ധമായിട്ടാട്ടി കുപ്പിയിലൊക്കെ വരുന്ന വെളിച്ചെണ്ണകളാണ് അതുപോലെത്തന്നെ പഞ്ചസാര പഞ്ചസാരയ്ക്ക് മിക്കയിടത്തും വല്യ റേറ്റ് വ്യത്യാസമില്ല എന്നാലും ചെറിയ വ്യത്യാസം വരാറുണ്ട് പിന്നെ തേങ്ങ തേങ്ങയ്ക്ക് നല്ല വ്യത്യാസമുണ്ട് പല കടകളിലും പല വിലകളാണ് തേങ്ങയ്ക്ക് വരുന്നത് അപ്പം സ്വന്തമായിട്ട് തെങ്ങൊക്കെ ഉള്ളവരാണെങ്കിൽ ചിലപ്പം മറ്റുള്ള കടകളേക്കാളും ഒക്കെ രണ്ടും മൂന്നും രൂപയൊക്കെ കുറച്ച് നമുക്ക് കിട്ടും വില പിന്നെ ചിലർക്ക് ഈ പുറത്തുനിന്നു വരുന്ന തേങ്ങകളാണെങ്കിൽ ഒരു വില തന്നെയായിരിക്കും പിന്നെ പച്ചക്കറി കൃഷികളൊക്കെ ഉള്ള കടക്കാരൊക്കെയാണെങ്കിൽ മറ്റുള്ള കടകളെ അപേക്ഷിച്ച് നമ്മൾക്ക് രണ്ടോ മൂന്നോ രൂപയൊക്കെ നമുക്ക് കുറച്ച് തരും പച്ചക്കറിക്ക് ഇപ്പം മറ്റേ കോവയ്ക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോവയ്ക്ക വെണ്ടയ്ക്ക ഒക്കെ അപ്പം ചിലപ്പം പുറത്തുനിന്നൊക്കെ സാധനം എടുക്കുമ്പം മാർക്കറ്റിൽ പോയി സാധനം എടുത്തുകൊണ്ട് വരുന്ന പലചരക്ക് കടകളൊക്കെയാണെങ്കിൽത്തന്നെ അവർ ആ വില അനുസരിച്ചാണ് നമ്മൾക്ക് വില തരാറുള്ളത് അപ്പം നമ്മളെന്ത് ചെയ്യും നമുക്കപ്പം വില കൂടുതലാണെന്ന് തോന്നുമ്പോൾ നമ്മൾ വേറെ കടകളിൽ പോകും അല്ലെങ്കിൽ നമ്മൾ പിന്നെ കവലയ്ക്കൊക്കെ പോകുന്ന കൂട്ടത്തിൽ നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങാറുണ്ട് പിന്നെ ഇപ്പം നമുക്കറിയാം പലചരക്ക് കടകളിലെന്ത് ഇപ്പം നമ്മുടെ വീട്ടിലൊരു വിരുന്നുകാരൊക്കെ വന്നെങ്കിൽപ്പോലും നമുക്ക് പെട്ടെന്ന് ഓടിച്ചെന്ന് അച്ചാറുകൾ പാക്കറ്റ് അച്ചാറുകളൊക്കെ നമുക്കവിടെ കിട്ടും അതൊക്കെ വാങ്ങിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് നമ്മൾ അങ്ങനെ ഇപ്പോൾ എനിക്കു തോന്നുന്നു പലചരകടകളിലെല്ലാം പലചരക്കുകടകളിൽ ഇപ്പം അരി പഞ്ചസാര തേയില തേങ്ങ സവോള ഉള്ളി കിഴങ്ങ് അങ്ങനെയുള്ള സാധനങ്ങൾ കൂടാതെ ഇപ്പം ഭക്ഷണങ്ങൾ ഭക്ഷണപദാർത്ഥങ്ങളും കൂടെ അപ്പം ഈ കടകളിലൊക്കെ വിൽക്കുന്നുണ്ട് ഇപ്പം എല്ലാ ഒരു ഇപ്പം ഇപ്പം ചെറിയ കടകളാണെങ്കിൽ കൂടി ഇപ്പം എല്ലാം ഉള്ള ഒരു കടകളിലെ നമ്മളിപ്പം സാധാരണ പോവാറായിട്ട് നമ്മൾ ശ്രമിക്കത്തുള്ളൂ